വെറുതെ പുസ്തകം നോക്കി പഠിക്കണേ കാട്ടിലും എന്ത് കൊണ്ടും കുട്ടികൾക്ക് നല്ലത് ശാസ്ത്ര പഠനമാണ് കാരണം ശാസ്ത്ര പഠനത്തിലൂടെ കുട്ടികൾക്ക് നന്നായി ആയി ഓരോ ഓരോ സംഭവങ്ങളും മനസിലാക്കി എടുക്കാൻ കാണിക്കും വായിച്ച് മനസിലാക്കണേക്കാട്ടിലും എത്രയോ നന്നായിട്ട് ഒരു കുട്ടിക്ക് കണ്ട് മനസിലാക്കാൻ സാധിക്കുന്നതാണ് ഉദാഹരണം മാത്സ്സിലെ ഓരോ ഷേയ്പ്പ് അവർക്ക് ജോമെട്രിക്കലായി കാണിച്ച് എക്സ് എക്സ്പ്ലൈൻ ചെയ്യണേക്കാട്ടിലും എന്ത് കൊണ്ടും നല്ലത് അവർക്ക് അത് വിഷ്വലൈസ് ചെയ്ത് ഒരു പ്രൊജക്ടർ വെച്ച് സ്ക്രീനിൽ വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും അവരുടെ പഠന രീതിക്ക് ഏറ്റവും മികച്ച ഒരു ഏറ്റവും മികച്ച ഒരു കാര്യം